ഇടയ്ക്കിടെ എന്നല്ല എപ്പോഴും ടൂർ പോകാറുണ്ട് ടൂർ പോകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷവും കുളിർമയുള്ളൊരു കാര്യമാണ് ഞാൻ ഫാമിലിയായിട്ടും ടൂർ പോയിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ടും പോയിട്ടുണ്ട് റിലേറ്റീവുമായിട്ടും പോയിട്ടുണ്ട് എനിക്ക് ടൂർ പോവാനേറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഊട്ടി മൈസൂർ കൊടൈക്കനാലാണ് അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോവാൻ അവസാനമായിട്ട് ഊട്ടിയിൽ പോയപ്പോൾ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ പങ്കുവെയ്ക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ടൂറ് പോകുന്നില്ല ഒരു കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് പൊടിക്കുഞ്ഞ് ആയതുകൊണ്ട് ടൂറിപ്പോൾ പോവാതിരിയ്ക്കുകയാണ് ടൂറിനു പോയപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ ടൂറിന് ഞാനും കുഞ്ഞും ഹസ്ബൻ്റും ഹസ്ബൻ്റും എല്ലാവരും കൂടിയാണ് ടൂർ പോയത് എന്തുകൊണ്ടാണ് ആ സ്ഥലം ഇഷ്ടപ്പെടാൻ കാരണം എന്നു വച്ച് കഴിഞ്ഞാൽ ഊട്ടിയിലൊക്കെ നല്ല തണുപ്പാണല്ലോ തണുപ്പായതുകൊണ്ടാണ് എനിക്കവിടെ പോവാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഇതിൽ പറഞ്ഞ കണക്ക് ടൂർ പോവുമ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യാറൊക്കെയുണ്ട് എന്നാലും പിന്നെ എനിക്കത് സന്തോഷമാണ് നമ്മൾ ടൂർ പോകുമ്പോൾ ദൂരെ യാത്രയൊക്കെ ചെയ്യാൻ പാടായാലും ടൂർ പോവുന്നത് ആയതുകൊണ്ട് ഞാൻ എല്ലാവട്ടവും വൊമിറ്റ് ചെയ്താലും പോവാൻ ശ്രമിക്കും കഴിവതും ഏതു സമയത്താണ് പോവാനൊരുപാടിഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്താണ് പോകാനിഷ്ടം വെക്കേഷനാകുമ്പോൾ കുഞ്ഞിന് അവധിയാണ് പിന്നെ ഹസ്ബൻ്റിന് അവധിയാണ് അങ്ങനെ വെക്കേഷൻ സമയത്ത് പോവാനാണ് ഒരുപാടിഷ്ടം പിന്നെ ടൂറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൂറ് ടൂറ് വല്ലപ്പോഴും പോയില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ഇതാണ് പിന്നെ അങ്ങനെയിരിക്കെ പിന്നെ കഴിഞ്ഞ രണ്ടുമാസം മുമ്പൊരു ടൂർ പോയായിരുന്നു അത് തീർത്ഥാടനമാണ് വേളാങ്കണ്ണിയിലാണ് പോയത് കുഞ്ഞിനേയും കൊണ്ടാണ് പോയത് അപ്പോൾ രണ്ടു കുഞ്ഞുങ്ങളെ മൊട്ടയടിക്കാൻ പറ്റി അങ്ങനെ നല്ല യാത്രയായിരുന്നു പിന്നില്ലെ പറഞ്ഞ കണക്ക് വേളാങ്കണ്ണി വരെ ട്രെയിനിനാണ് പോയത് നേരത്തേ ബുക്ക് ചെയ്ത ഒരു രണ്ട് രണ്ടുമൂന്ന് മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടുപോലും നമുക്കാണെങ്കിൽ റിസർവേഷൻ കിട്ടിയില്ല പിന്നെ നമ്മൾ തൽക്കാലൊക്കെ എടുത്ത് നമ്മൾ പോയി നല്ലൊരു യാത്രയായിരുന്നു വേളാങ്കണ്ണി ട്രിപ്പ് പിന്നെ വേളാങ്കണ്ണിയിൽ പോയപ്പം അവിടങ്ങളിലുള്ള പള്ളികളെല്ലാം പോവാൻ പറ്റി എനിയിപ്പം ഇനി വീഗാലാൻ്റിലൊന്നു പോകണമെന്ന് വിചാരിക്കുന്നു എനിയിപ്പം ഓണത്തിൻ്റെ അവധിയുണ്ടല്ലൊ ഓണത്തിൻ്റെ അവധിക്ക് വീഗാലാൻ്റിൽ പോകണമെന്നു വിചാരിക്കുന്നു പിന്നെ എന്തുവാണ് ടൂറെന്നു പറയുമ്പോഴെല്ലാർക്കും ഇഷ്ടമാണല്ലോ വെറുതെ വീട്ടിലിരിക്കുന്നു വെറുതെ വീട്ടിലിരിപ്പല്ലേ അപ്പോൾ വല്ലപ്പോഴുമൊന്ന് കറങ്ങാൻ പോകുന്നതൊക്കെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളല്ലിയോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും ടൂറ് പോവാറുണ്ട് അന്നൊക്കെയാണെങ്കിൽ സാറമ്മാരുടെ കൂടെ ടൂറ് പോകുമ്പോൾ സൂയിൽ പോകുമ്പോഴായാലും സാറമ്മാർ പറയും ആ ഇത് സിംഹമാണ് ഇത് കടുവയാണ് എന്നു പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കും നമുക്കില്ല പറഞ്ഞ കണക്ക് നല്ലോണം ഒന്ന് എഞ്ചോയ് ചെയ്തു കാണാനോ ഒന്നും പറ്റത്തില്ല ഇപ്പം നമ്മൾക്ക് പോവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എത്രനേരം വേണമെങ്കിലിരുന്ന് കാണാം കാണാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ എന്തുവാ കുഞ്ഞിനെ എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൂർ പോകുന്നത് അവളാണെങ്കിൽ ടൂറിന് പോകാമെന്ന് പറഞ്ഞാണ് ഒരുമാസം മുമ്പേ എല്ലാം റെഡിയാക്കി വച്ചേക്കും അവൾക്ക് ടൂറിന് പോയില്ലെങ്കിൽ നമ്മൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പോയേ പറ്റൂ നമ്മൾ പറയാതെ സർപ്രൈസായിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്തുവാ ടൂറ് ആ ഇനിയിപ്പോൾ ഒരുപാട് ടൂറ് പോകണമെന്ന് ആഗ്രഹമുണ്ട് ആ ഇനിയിപ്പോൾ ഇനി അടുത്തമാസമൊക്കെ പോവണമെങ്കിൽ വെക്കേഷന് ഓണത്തിന് പത്തു ദിവസം അവധി അവധിയുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് അവധി ആയതുകൊണ്ട് ഹസ്ബൻ്റിന് അവധിയായതുകൊണ്ട് ഓണത്തിന് എവിടെങ്കിലും പോവണമെന്ന് പറഞ്ഞിരിക്കുന്നു പിന്നില്ലെ പറഞ്ഞ കണക്ക് ഈ വൊമിറ്റ് ചെയ്യുന്നത് കാരണം അങ്ങ് ദൂരെയൊക്കെ പോകാൻ ഭയങ്കര പാടാണ് പിന്നെ വൊമിറ്റിൻ്റെ ഗുളികയൊക്കെ മെഡിസിനൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ പോകാറുള്ളത് പിന്നില്ലെ പറഞ്ഞ കണക്ക് യാത്ര ചെയ്താലും എന്നും നമ്മുടെ വീട്ടിൽത്തന്നെ ഇരിക്കുന്നത് എന്നും വീട്ടിലല്ലെ ഇരിക്കുന്നത് വല്ലപ്പോഴുമൊക്കെ വെളിയിലൊക്കെ പോകുന്നതും അവിടുത്തെ ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതു കണക്ക് ആ വീട്ടിലിനിയിപ്പോൾ ഇനി ഇനി അടുത്ത ടൂറെന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ടാണ് പോകുന്നത് ഒരു ട്രാവലർ പിടിച്ച് പോകണമെന്ന് വിചാരിക്കുന്നു എല്ലാ അവിടെയൊന്ന് പോയി സന്തോഷത്തോടെയൊക്കെ വരാമല്ലോ അത് വീട്ടിൽ എപ്പോഴും വീട്ടിൽ ഇരിപ്പല്ലെ വല്ലപ്പോഴുമൊരു ടൂർ പോവുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ടൂറിന് പോകുമ്പോൾ നമുക്കേറ്റവും വേണ്ടത് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുക വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇടുക പിന്നെയത് സ്റ്റാറ്റസിടുക പിന്നെ വീണ്ടും വീണ്ടും ആ ഫോട്ടോകൾ കാണുക ഇതൊക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ പിന്നെ ആ ഫോട്ടോ വരുന്ന ഫ്രണ്ട്സിനെ കാണിക്കുക റിലേറ്റീവിനെ കാണിക്കുക പിന്നെ കുറച്ച് നാളത്തേക്ക് ആ ഫോട്ടോയുടെ ആ ഫോട്ടോ തന്നെ എപ്പോഴും ഇട്ട് ഇട്ട് ഇട്ട് ഇട്ട് നാട്ടുകാരെയെല്ലാം കാണിക്കും താനും പ്രധാന വിനോദം ആ ഇനിയിപ്പോൾ ആ ഓണത്തിന് ഓണം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസിനുണ്ട് അങ്ങനെ വെക്കേഷൻ സമയത്താണ് ഏറ്റവും കൂടുതൽ ടൂറ് പോവാൻ താല്പര്യം എന്നു വച്ചാൽ താൽപര്യമെന്നല്ല കുഞ്ഞുങ്ങൾക്കും ഹസ്ബൻ്റിനും അവധി വെക്കേഷൻ സമയമായതുകൊണ്ട് വെക്കേഷന് പോകണം എന്ന് വിചാരിക്കുന്നു പിന്നെ എന്തുവാ സന്തോഷമുള്ള കാര്യമാണ് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ വീട്ടീൽ നിന്ന് റിലാക്സാവുന്നുണ്ട് മറ്റേത് വീട്ടിൽ നമ്മൾ വീട്ടിലെ ജോലിയും വീട്ടിലെ ജോലി ജോലി നേരം വെളുത്താൽ വൈകിയിട്ട് വരെ ജോലി ജോലിയെന്നും പറഞ്ഞിരിക്കുകയാണല്ലോ ഇതാകുമ്പം നമ്മൾക്ക് ജോലിയൊന്നും ചെയ്യേണ്ട എഞ്ചോയ് ചെയ്ത് പല പല സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പലപല ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ സന്തോഷകരമായ ഒരു നിമിഷം നമ്മൾക്ക് നമ്മൾക്ക് ടൂറിലൂടെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾക്ക് റിലാക്സാവുന്നുണ്ട് മറ്റേത് വീട്ടിലേ കാര്യങ്ങൾ അയ്യോ അതാണ് അതാണ് ഇതാണ് അങ്ങനെ ചിന്തകളൊന്നും ഈ ടൂർ പോകുമ്പോൾ വരുന്നില്ല നമ്മൾക്ക് ടൂറ് പോകുമ്പോൾ ടൂറ് പോവുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത അതേസമയം നമ്മൾ ടൂർ പോകാതെ വീട്ടിലിരിക്കുമ്പം വീട്ടിലെ കാര്യങ്ങൾ അത് ഇത് അങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നത് പക്ഷേ ടൂർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതിൻ്റെ ആ നമ്മൾ ആ ലോകത്തായിരിക്കും പിന്നെ രണ്ടു മൂന്ന് ദിവസം ടൂർ കഴിഞ്ഞാലും ടൂറ് ടൂറിന് മുമ്പും ടൂർ കഴിഞ്ഞാലും നമ്മൾക്ക് ആ ചിന്തയായിരിക്കും ആ ടൂറിന് പോയ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് വിളിച്ചു പറയുക റിലേറ്റീവിനോട് വിളിച്ചു പറയുക ഇതൊക്കെയാണ് ടൂറുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഇഷ്ടങ്ങളിതാണ് ഇതാണെനിക്ക് പറയാനുള്ളത്